നമ്മള് മി നല്ല ഒരു സ്ഥലത്ത് പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വരാൻ നേരത്ത് കുടുംബത്തിലെ അവര് വന്ന് നമ്മുടെ മീനൊക്കെ വാങ്ങി നല്ല യു ട്യൂബില് നോക്കിക്കൊണ്ട് ഡിഷെസും പൊള്ളിപ്പിച്ചും കാര്യങ്ങള് തരും അവര് സപ്പോർട്ട് ചെയ്യും പക്ഷേ അവര് പിന്ന മെയിനായിട്ടവർക്കൊരു പേടിയാണ് എന്തിനും അവര് ഒരത്യാവശ്യയിട്ട് ഒര് മത്സരത്തിന് കൊണ്ട് വന്നാലും അവരൊരു ഉള്ളിൽ ഭയം കാണും ഒരുപാട് സ്ത്രീകളും അങ്ങനെല്ല എന്നാലും മിക്ക നൂറ് ശതമാനം സ്ത്രീകളും അങ്ങനെ ആണെന്നാണ് എൻറ്റൊരു വിശ്വാസം ഇപ്പം എല്ലാത്തിനും എല്ലാവരും ധൈര്യമായിട്ട് ഇറങ്ങുന്നുണ്ട് ഓക്കേ സ്ത്രീകള് പ്രത്യേക അവര് നല്ല യു ട്യൂബില് നോക്കി ഡിഷസ് ഉണ്ടാക്കി തരും ആദ്യം നല്ല നല്ല മീനുകളില് നല്ല കറികൾ ഉണ്ടാക്കി തരും പിന്നെ അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ